ഹലോ ഇത് ചെറുപുഷ്പം ഓട്ടോയല്ലേ അതെ ഞാനാണ് എനിക്ക് എനിക്ക് മണ്ണാറശ്ശാല അമ്പലം വരെ ഒന്ന് പോണമായിരുന്നു രണ്ട് മണിയാവുമ്പം പോകണം അതെ അതെ ഇന്ന് രണ്ട് മണിക്ക് ഞാനും രണ്ട് മൂന്ന് പേരുമുണ്ട് ആ എന്നാൽ എന്നാലും മതി രണ്ട് അര ആ രണ്ട് അര മൂന്ന് ആവുമ്പം വന്നാലും മതി ആ പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടേ ആ ഇത് ഞാൻ പറയാം ര ഞങ്ങൾ മൂന്ന് പേരുണ്ടേ ഒരാൾ പള്ളിക്കടവീന്നെടുക്കണം ഒരാൾ വഴിയമ്പലത്തിലുണ്ട് ഒരാൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അ മൂന്ന് പേർ മൂന്ന് ആ മതി കടവ് വഴി ഞങ്ങളുടെ വീട് വഴി വഴിയമ്പലത്തിലോട്ട് പോയി മണ്ണാറശ്ശാലക്ക് പോയാൽ മതി ഞങ്ങൾക്കിച്ചിരി താമസം വരും അവിടെ അവർക്ക് എൻ്റെ കൂടെ വരുന്നവർക്കവിടെന്തോ ചെയ്യാൻ തൊഴാനോ ഓ അത് മാർക്കറ്റിംഗ് നടത്താനൊക്കെയുണ്ട് ആ വെയിറ്റ് ചെയ്യണം ആ ലേറ്റാവും ലേറ്റാവും ലേറ്റാവും

മതി മതി മതി മതി അപ്പോൾ വെയിറ്റിംഗ് ചാർജൊക്കെ ഒന്ന് പറയണം വെയിറ്റിംഗ് ചാർജൊക്കെ ഒന്ന് പറയണം ഒരു മണിക്കൂറെങ്കിലും താമസമുണ്ടാവും ആ പിന്നെ വെയിറ്റിംഗ് ചാർജും തരാം തരാം തരാ അപ്പം ഞാൻ പറയാ പറയാം മതി ആ ആ ശരി ആ ആ ആ ആ ആ വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേർ ഇല്ലില്ല കുഴപ്പം ഇല്ലില്ല ഇല്ല ആ ആ കുഴപ്പം പൈസ അൽപ്പം ഇത്രയും റേറ്റ് പറയുന്നോ ഇച്ചിരി കുറച്ച് തരാവോ അയ്യോ ഇല്ല ഇത്രയൊന്നും മേടിക്കത്തില്ല ഇത്രയൊന്നും മേടിക്കത്തില്ല ചിലർ മാറ്റമില്ല ആ ആ ആ ഇച്ചിര കുറയ്ക്ക് ആ മുന്നൂറ്റി അൻപത് പിന്നെ വെയിറ്റിംഗ് ചാർജും തരാം എന്നാൽ രണ്ട് മണിക്ക് ഞാൻ വീ ദേ ഇത് ഇത് കേൾക്ക് രണ്ട് മണിക്ക് ഞാൻ വീണ്ടും ഒന്നൂടെ വിളിക്കാം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ആ പറയാം പറയാം

ആ വിളിച്ചാൽ മതി രണ്ട് മണിക്ക് ഞാൻ വീണ്ടും വിളിക്കാം ഓ ഓക്കെ ഓക്കെ